ഫാഷൻ ഇന്ത്യയിൽ തന്നെ ഒത്തിരി മാറ്റങ്ങള് കാണിച്ചോണ്ട് വന്ന ഒര് മേഘലയാണ് തുടക്കത്തില് പരമ്പരാഗതമായ ഫാഷൻ വസ്ത്ര പരമ്പരാഗതമായ വസ്ത്രങ്ങളുപയോഗിച്ച സ്ഥലത്ത് നിന്നും ഇപ്പോൾ നമുക്ക് പേര് പോലും പറയാനാവാത്ത ഒത്തിരി കോമ്പ്ലിക്കേറ്റഡായിട്ടുള്ള വസ്ത്ര രീതികളാണ് ഇപ്പം നമ്മള് കണ്ടു വരുന്നത് അതിന് തീർച്ഛയായും ഒര് പാശ്ചാത്യ വസ്ത്രരീതികളുടെ സ്വാധീനം നമുക്ക് വളരെ രീതിയില് കാണാനായിട്ട് പറ്റും നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ സമയത്ത് പോലും ഗാന്ധിജി പറഞ്ഞിരുന്നത് നമ്മള് നമ്മളിൽ തന്നെ ഡിപ്പൻ്റൻറ്റായി നിന്നുകൊണ്ട് അതായത് ഇന്ത്യക്കുള്ളില് തന്നെ നമ്മള് ചർക്ക കൊണ്ടുപയോഗിക്കുന്ന കൈത്തറി വസ്ത്രങ്ങള് ഉപയോഗിക്കണം എന്നുള്ള ഐഡ്യ ഒക്കെ കൊടുത്തിരുന്നെങ്കിൽ പോലും അതിൻ്റെ ഒരു ഇൻ കൺവീന്യൻസും അല്ലെങ്കിൽ ആൾക്കാർക്ക് വെസ്റ്റേൺ വസ്ത്രങ്ങള് കുറച്ചും കൂടി അഫോഡബിളായിട്ട് വാങ്ങാൻ പറ്റും അത് കുറച്ചും കൂടി കംഫട്ടബിളായിട്ടിടാനും പറ്റുക എന്ന് ഒക്കെയുള്ള സ്ഥലത്ത് ഇതിന് കുറച്ചും കൂടി മാറ്റങ്ങള് വന്നിട്ടുണ്ട് പാശ്ചാത്യ വസ്ത്രരീതികള് നമ്മളെ ഒത്തിരിയധികം സ്വാധീനിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മളിപ്പോൾ യുവതലമുറയില് നോക്കുവാണെങ്കില് അവരും ആഗ്രഹിക്ക്ന്നതൊരിക്കലുമൊര് കോമ്പ്ലിക്കേറ്റഡായിട്ട് വസ്ത്രം ധരിച്ച് മറ്റുള്ളവരെ കാണിക്കുക എന്നുള്ളതല്ല അവരവരുടെ കംഫർട്ടബിളായിട്ട് അവർക്ക് ഏതാണോ സ്വീകാര്യത കൂടുതൽ അവർക്കേതാണോ കംഫർട്ടബിൽ എന്നുള്ളത് നോക്കിയാണ് അവരെപ്പഴും വസ്ത്രം ധരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് പക്ഷേ അത് നമ്മുടെ പഴയ തലമുറയ്ക്ക് അഡ്ജസ്ട് ചെയ്യാനും അവർക്കങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാനും പറ്റാത്ത രീതി നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് ഇന്ത്യയുടെ ഫാഷൻ രീതി ഇപ്പോൾ ഫാഷൻ മേഖല നോക്കുകയാണെങ്കിൽ പോലും ഒത്തിരി അധികം മാറ്റങ്ങള് വന്നിട്ടുണ്ട് നമ്മുടെ ട്രഡീഷണൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീ എന്ന് നമ്മളിവിടെ ഒത്തിരി ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ്സ് എസ്റ്റാബ്ലിഷ് ആകുകയും ബാംഗ്ലൂർ പോലെ ഉള്ള സിറ്റീസ് തന്നെ ഫാഷൻ സിറ്റിസായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നിരവധി തരത്തിലുള്ള വ്യത്യസ്ത വസ്ത്രങ്ങളിന്ന് നമ്മുടെ നമ്മുടെ ഇന്ത്യയില് കടന്നുകൂടിയിരിക്കുകയാണ് ഒരാൾക്ക് എങ്ങനെ അവനെ മറ്റുള്ളവരുടെ മുന്നില് പ്രസൻറ്റെ ചെയ്യണമെന്നുള്ളത് വളരെ ഇമ്പോട്ടൻ്റായിട്ടുള്ള ഒരു കാര്യമാണ് അതില് വസ്ത്രങ്ങളും ഫാഷനും ഒരുപാട് എന്താണ് ഒരുപാട് സ്വാധീനം ചെലുത്തുന്നുണ്ട് ഇപ്പം തന്നെ നമുക്കറിയാം യുവതലമുറയുടെ ഇടയിൽ കൊറിയൻ ഫാഷൻ ഭയങ്കരമായിട്ട് കടന്ന് കയറിയിട്ടുണ്ട് ഇപ്പം യുവ തലമുറയൊക്കെ കൊറിയൻ ഫാഷൻ്റെ പുറകെ ആണ് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഏത് തന്നെ ഫാഷനായാലും ഒരാൾക്ക് അവന് കംഫർട്ടബിളാണ് അല്ലെങ്കിൽ അവൾക്ക് കംഫർട്ടബിളാണ് എന്ന് തോന്നുന്ന വസ്ത്രങ്ങളിടാനും അതിന് മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഈ ഒര് ഫാഷൻ മേഖലയിലെ ഏറ്റവും ഇമ്പോട്ടൻറ്റാണ് എന്നെനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പം പേഴ്സണലീ എൻ്റെ കാര്യം പറയുവാണെങ്കിൽ പോലും ഒര് ട്രഡീഷണൽ ഒക്കേഷനാണെങ്കിൽ ചിലപ്പോൾ പാരമ്പരാഗതമായ ഒര് രീതി അനുസരിച്ചൊര് സാരിയോ ഒര് പട്ട്പാവാടയോ ഒക്കെ ഇട്ടുകൊണ്ട് പോവാനാഗ്രഹിക്കുമെങ്കിലും ദിനം പ്രതി പോയി വരുന്ന സ്ഥലത്തോ അല്ലെങ്കില് ദിവസം ഉപയോഗിക്കാനായിട്ട് എനിക്കൊര് ജീൻസ്സും ടോപ്പുവോ ഒരു ലഗിൻസ്സും ടോപ്പുവോ ഒക്കെത്തന്നെയാണെനിക്കും കംഫർട്ടബിള് കാരണം അത് ഇട്ടോണ്ട് നടക്കാനും എളുപ്പാണ് അത് അതിൻറ്റേതായ ഒരു എന്താ നമുക്കൊര് ബുദ്ധിമുട്ടൊണ്ടാക്കാത്ത തരത്തിലുള്ളതാണ് ഇപ്പോൾ സാരിയൊക്കെ ആണെങ്കില് നമ്മള് നമുക്കത് ആയാലും നമ്മള് നമുക്ക് അത് ഉപയോഗിച്ച് ശീലമില്ലാത്തത് കൊണ്ട് തന്നെ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അതൊര്പാട് ടൈം കൺസ്യൂമിങ്ങാണ് ഇപ്പഴത്തെ ഈ ഒര് കാലാവസ്ഥയ്ക്കനുയോജ്യമായിട്ടുള്ളൊര് വസ്ത്രം എന്ന് തോന്നുന്നതും കോട്ടൺ സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും ജീൻസും ടോപ്പോ അല്ലെങ്കില് ലെഗീൻസ്സും ടോപ്പോ ഒക്കെത്തന്നെ ആയിരിക്കും അപ്പോൾ നമ്മുടെ കാലാവസ്ഥയും ആൾക്കാരടെ മൈൻസെറ്റുവൊക്കെ മാറി വരുന്നത് അനുസരിച്ച് നമ്മുടെ ഫാഷൻ രീതിയിലും ഒരുപാട് മാറ്റങ്ങളുണ്ട് ഈ മാറ്റങ്ങളെല്ലാവരും ഒരുപോലെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതായത് പേഴ്സണലി ഫാഷൻ മാറുന്നതനുസരിച്ച് നമ്മള് മാറിക്കൊണ്ടിരിക്കണം എന്നുള്ളതല്ല മറ്റൊരാളുപയോഗിക്കുന്ന ഒര് വസ്ത്രത്തെയോ അവരുടെ ഫാഷനെയോ ജഡ്ജ് ചെയ്യാൻ നമ്മളാൾക്കാരല്ല എന്നുള്ളതാണ് പൊതുവേ മനുഷ്യരെന്ന ലേല് മനുഷ്യർ എന്നൊള്ള നെലേല് നമ്മള് മനസ്സിലാക്കേണ്ടത്